ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ജീവിതകാലം എന്ന് പറയുമ്പോൾ ഏറ്റവും വന്ന മാറ്റങ്ങളിൽ ഒന്നാണ് മൊബൈൽ ഫോണിൻ്റെ വരവെന്ന് പറയുന്നത് പണ്ട് സാധാ സ്വിച്ച് ഫോണുണ്ടായിരുന്ന സമയം നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഫോർ ജി ത്രീ ജി ടു ജി അങ്ങനെയൊന്നുമില്ലാതെ സാധാ മൊബൈൽ ഫോണ് നമുക്ക് കോള് ചെയ്യാൻ മാത്രമായിട്ടുള്ള രീതിയില് സ്വിച്ച് ഫോൺ ആണ് പണ്ട് ഉണ്ടായിരുന്നത് അതിലും വലിയ എന്താ അതിലും വലിയ ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അത്യാവശ്യത്തിന് കോള് പരസ്പരം വിളിച്ച് സംസാരിക്കാമെന്നുള്ള ആ ആ ഒരു ഫങ്ഷന് വേണ്ടി മാത്രം സ്പെസിഫെയിഡ് ചെയ്ത് നിർമ്മിച്ച പോലെ ആയിരുന്നു അത് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സെസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നോർമൽ ഫോൺ ഒരാളുടെ പോക്കറ്റിൽ ഒതുങ്ങാവുന്നത് ചെറിയ അത്യാവശ്യം കയ്യിൻ്റെ വലിപ്പം പോലുമുണ്ടാവില്ല അത്രയും ചെറിയ ഫോണുകളാണ് പണ്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ കാലമെന്ന് പറയുമ്പോൾ ഒരുപാട് സ്മാര്ട്ട് ഫോൺ അവൈലബിളാണ് ഒരുപാട് പുതിയ തരത്തിലും വേർഷൻസായാലും മോഡലുകളായാലും മടക്കി യൂസ് ചെയ്യാവുന്ന രീതിയിലടക്കം അവൈലബിളാണ് ഏ ജീവിതകാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണിൻ്റെ വരവാണ് സ്മാർട്ട് ഫോണിൻ്റെ വരവോടുകൂടി തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സെസ്സും വളരെയധികം കൂടിയിട്ടുണ്ട് നമുക്ക് പണ്ട് പരസ്പരം ഫോണിലൂടെ വോയിസ് സെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മീൻസ് കോൾ ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് വീഡിയോ കോൾ വീഡിയോ കോളിലൂടെ പരസ്പരം കണ്ട് സംസാരിക്കാം ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം വിളിക്കാം ഒരു മെസ്സേജ് അയയ്ക്കാം പണ്ട് പറയുമ്പോൾ മെയിലൊക്കെയായിരുന്നു പോസിബിളായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ മെയില് നമ്മളയക്കണ മെയില് അയാൾക്ക് കിട്ടിയോ എപ്പോൾ കിട്ടി അയാളത് റീഡ് ചെയ്തോ അതിനെ റിപ്ലൈ അയക്കുന്നുണ്ടോ എന്നൊന്നും അറിയാൻ സാധിക്കില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ വാട്ട്സ്ആപ്പ് ഫേസ്ബുക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി നമുക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ തന്നെ അതയാൾക്ക് കിട്ടിയോ അതോ മിസ്സായിപ്പോയോ എന്നതൊക്കെ അറിയാൻ പറ്റും പിന്നെ എന്താ നമുക്ക് ആർക്ക് വന്ന് എവിടെ വേണമെങ്കിലും ഒരു ഫോട്ടോ അയക്കാം വീഡിയോ കോൾ ചെയ്യാം ഇതൊക്കെ ഒരു ഇതാണ് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും വന്ന ഒരു വലിയ ഒരു മാറ്റമെന്നാണ് എൻ്റെയൊരു ഞാൻ കണക്കാക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ വരവോടു കൂടിത്തന്നെ ലോകം ഒരുപാട് മാറിയിരിക്കുന്നു ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് നമ്മൂടെ വീട്ടിലിരുന്ന് ഒരു നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ നമ്മുടെ മൊബൈലിരുന്ന് കാണാനും കേൾക്കാനും റെക്കോഡ് ചെയ്തിട്ട് വീണ്ടും കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനുള്ളതൊക്കെ ഒരു അവസരമുണ്ട് അപ്പോൾ എന്താ പറയുക ഈ മൊബൈൽ ഫോണെന്ന് പറയണത് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതേ പോലത്തന്നെ ഒരുപാട് മോശം വശങ്ങളുമുണ്ട് സാങ്കേതിക വിദ്യയില് ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ളത് ഈ ഒരു നെറ്റ്വർക്ക് മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ഏരിയ ഭാഗമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ജോലി സ്ഥലത്തൊക്കെ എങ്ങനെയാണ് വച്ചു വച്ചാൽ നമ്മള് ഇപ്പോൾ ദൂരത്തേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് വിളിച്ച് ചോദിക്കാം നമ്മള് എവിടെയാണ് നമുക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഷെയർ ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് അപകടസാധ്യതകളിൽ നിന്ന് നമുക്ക് ഫോണ് യൂസ് ചെയ്യുന്നതോടെ നമുക്ക് ഡവലപ്പ് എന്താ അപകടസാധ്യതകളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൊബൈൽ ഫോണിൻ്റെ വരവോടു കൂടി നടന്നിട്ടുണ്ട്